ഇപ്പോൾ നമ്മള് കൃഷിപ്പണി എന്ന് പറയണ സമയത്ത് ഇത് നമ്മുടെ അതായത് നമുക്കിതിൻ്റെ മുകളില് എന്താ പറയുക നമ്മളെ ആരും ഭരിക്കാനോ കാര്യങ്ങളൊന്നുമില്ല നമ്മള് ഫ്രീ മൈൻറ്റായിട്ടും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിപ്പണി കൊണ്ട് തന്നെ നല്ല രീതിയില് ജീവിക്കാൻ പറ്റും പക്ഷെ കൃഷി നമ്മളെന്താണ് പറയുക ഈ കാലാവസ്ഥേനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതില്ലാന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മള് നല്ല രീതിക്ക് നമ്മള് എല്ലാം കൊണ്ടും നമ്മള് നമ്മുടെ കൃഷിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചും നല്ലതേ തരുവൊള്ളൂ ഇപ്പോൾ എന്താ പറയുക നല്ല രീതിയ്ക്ക് മഴ പെയ്യണ സമയത്ത് അത്യാവശ്യം നമ്മള് വെള്ളം ജലം സംഭരിച്ച് വയ്ക്കുക അത്യാവശ്യം നമുക്ക് വേണ്ട ജലങ്ങള് കുളങ്ങള് വൃത്തിയാക്കി കുളങ്ങള് ജലം സംഭരിച്ച് വെക്കാൻ പറ്റും കിണറുകള് വൃത്തിയാക്കി അതില് സംഭരിച്ച് വയ്ക്കാം പിന്നെ പൊതുവായിട്ട് വല്ല ടാങ്കോ അങ്ങനത്തെ എന്തെങ്കിലും കെട്ടാം അങ്ങനത്തെ ഇതിലൂടെയൊക്കെ നമുക്ക് ജലം സംഭരിച്ച് വെക്കാം ഇപ്പം മഴ ഓവറായാൽ തന്നെ അതൊക്കെ അത്യാവശ്യം വെള്ളം സ്റ്റോറേജ് ചെയ്ത് നിർത്തുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ വെള്ളം നമുക്ക് വേനൽക്കാലത്ത് നമുക്കത്യാവശ്യം കൃഷിക്കും കാര്യങ്ങൾക്കും പൊതുവായിട്ട് മിക്കവാറും എന്തായാലും പൊതുവായിട്ട് കള കുളങ്ങള് നമ്മുടെ നാട്ടില് ഇഷ്ട്ടം പോലെ കാണാൻ പറ്റും ഈ കുളങ്ങളൊക്കെ വൃത്തിയാക്കിയ തന്നെ ഒരു വിധം ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജല ദൗർലഭ്യം കുറയ്ക്കാൻ പറ്റും കാരണം ഇതിലൊക്കെ ചണ്ടീം മണ്ണും നറഞ്ഞ് വെള്ളം നിക്കാൻ പറ്റാണ്ട് കുറച്ച് മഴ പെയ്യുമ്പഴേക്കും വാ വാ എന്താ പറയുക കുളങ്ങളൊക്കെ ഫുള്ളായിട്ട് നിറയുകയാണ് അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് അതില് വേണ്ട വെള്ളം അതില് നിക്കുന്നില്ല ഈ കുളങ്ങള് എന്തിനാ പണിയുന്നത് കുളങ്ങളുടെ ഉദ്ദേശം എന്താ കൃത്യമായ രീതിയില് വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റണ സ്ഥലം മറിച്ച് മറ്റേത് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒലിച്ച് പോകുവാണ് ആ വെള്ളം നേരെ കടലിലേക്ക് എത്തുവാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുന്നില്ല നേരെ മറിച്ച് ശുദ്ധമായ കുളങ്ങള് വെള്ള ഇപ്പം നമ്മളുടെ നാട്ടിലൊള്ള കുളങ്ങളും ഇതക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ചെയ്യാം പിന്നെ നമ്മുടെ ഭൂമിയിലെ വെള്ളം വെള്ളത്തിൻ്റെ ലഭ്യത കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിക്ക് അത് വളരെ അധികം ഉപകാരമാണ് ഇപ്പ നമ്മള് ഈ കുളങ്ങളുടെ ചുറ്റും അത്യാവശ്യം കുറച്ച് തെങ്ങുകളും കാര്യങ്ങളും വെക്കൂന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് നനയ്ക്കണ്ട ആവശ്യം ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് അതിന് നല്ല രീതിയിലുള്ള വെള്ളം അതീന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും ഇപ്പം തെങ്ങു മാത്രല്ല വാഴയായാലും കവുങ്ങായാലും എന്തായാലും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ കൃഷിയുടെ ഇഷ്ടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കൃഷി ചെയ്യുമ്പോൾ അത് നല്ല സക്സസും കാര്യങ്ങളും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി മാത്രമല്ല എന്ത് ചെയ്യുമ്പഴും സക്സസാകുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും ഇപ്പം നമ്മള് പച്ചക്കറികളൊക്കെ ഇതാകണെന്ന് പറയുമ്പോൾ അല്ലെങ്കില് പൂവ് ഈ എന്താ പറയുക പൂ പൂവിൻ്റെ ഫാമ് ഈ പൂവൊക്കെ നിക്കണ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പൂവ് വിടർന്ന് വരുന്ന കാണുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃഷിയിലോട്ട് എറങ്ങാൻ കൂടുതലായിട്ട് താല്പര്യപ്പെട്ടതും അതിലേക്കിറങ്ങിയതും